വിദ്യാഭ്യാസ ലോണ് ഇപ്പം എടുക്കാൻ ചെല്ലുമ്പോള് ബാങ്കിലൊക്കെയാണെങ്കില് അവര് തരാന് ഭയങ്കരം ബുദ്ധിമുട്ടാണ് അവര് മനുഷ്യരെയിട്ട് കഷ്ടപ്പെടുത്തുകയാണ് പട്ടയമുള്ള സ്ഥലമാണെങ്കിലേ അവര് ലോൺ തരികയുള്ളൂ അല്ലാത്ത എല്ലാവർക്കും ഇപ്പോള് ഇടുക്കിയിലൊന്നും പട്ടയമൊന്നും എല്ലാവർക്കും കിട്ടിയിട്ടില്ല അത് പട്ടയം കിട്ടണമെങ്കിലും ഭയങ്കരം പാടാണ് അപ്പോള് ലോണിന് ചെല്ലുമ്പോള് ഇങ്ങനെ നോക്കി നിന്ന് ഓ പിന്നെ ഓരോ കാര്യങ്ങള് പറഞ്ഞ് ഈ ഈ ബാങ്കുകാരെല്ലാം മാറ്റി മാറ്റിയങ്ങ് വരുന്നതുകൊണ്ട് കൊച്ചുങ്ങള്ക്കൊക്കെ ഒത്തിരി പാടാണ് പുറത്തേക്കൊക്കെ പോയി ഒന്ന് പഠിക്കണമെങ്കിലും പിന്നെ ഈ ലോണൊക്കെയെടുത്ത് എങ്ങനെയെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാല് ലോണെടുത്ത് പഠിച്ചൊക്കെ കഴിയുമ്പോള് പിന്നെ അതൊന്ന് തിരിച്ചടയ്ക്കണമെങ്കിലും വേറെ മാർഗമൊന്നുമില്ലല്ലോ ഈ കൃഷിയില് നിന്ന് വല്ലതും കിട്ടിയാലല്ലെ ഇത് തിരിച്ചടയ്ക്കാന് പറ്റുകയുള്ളൂ അതായത് പഠിച്ച് ജോലിയായി കഴിഞ്ഞിട്ട് തിരിച്ചടയ്ക്കാനുള്ള സാവധാനമൊന്നും ഇത് സർക്കാര് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഇത്രയും സാവധാനമൊക്കെ ജോലിയായിക്കഴിഞ്ഞിട്ടെ തിരിച്ചുപിടിക്കാവൂവെന്നുള്ളതും ഒക്കെ സംവിധാനം സർക്കാര് സ്വീകരിക്കുകയും ചെയ്യണം ആ ചിലപ്പോള് അഞ്ച് സെൻ്റും ഒരു സെൻ്റുമൊക്കെയുള്ള ആൾക്കാര് ചിലപ്പോള് അതുമില്ലാത്ത ഇപ്പം പാവങ്ങളായ പിള്ളേര് ഒത്തിരിയുണ്ടിവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുമൊക്കെ അവർക്ക് സർക്കാര് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണമെന്നാണ് ഞങ്ങളെ പോലെയുള്ള കർഷകരുടെ അഭിപ്രായം ഇടുക്കിയിലൊക്കെയാണെങ്കില് ഒത്തിരി പിള്ളേർക്കും വിദ്യാഭ്യാസം ചെയ്യണമെന്നാഗ്രഹമുണ്ട് പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഭയങ്കരം പാടാണ് പഠിക്കാന് ആ പുറത്തൊക്കെ ഒന്ന് പോയി പഠിക്കാനായാലും അതും ചിലപ്പോള് ഈ ലോണൊക്കെ പോയി കിട്ടി പഠിക്കാൻ ചെല്ലുമ്പോള് ചിലപ്പോള് അവിടെ അതിനുള്ള നല്ല സൗകര്യങ്ങളൊന്നും കാണുകയുമില്ല ചില പിള്ളേരൊക്കെ പോയി പെട്ടുപോകുന്നുണ്ട് അവിടെ ചെന്ന് ഇങ്ങുപോരാൻ പറ്റുമോ കൊച്ചുങ്ങള്ക്ക് ആ പുറത്ത് ഇത് പറയാൻ പറ്റുകയില്ല ഏജൻ്റുമാരൊക്കെ കളിപ്പിച്ചും അങ്ങനെയുള്ള ഇതൊക്കെ ഈ സർക്കാര് കുറച്ചുകൂടി പിള്ളേർക്ക് ഈ ഇങ്ങനെയുള്ള സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത് പിള്ളേർക്കൊരു ജോലിയാകാനുള്ള ഈ തമിഴ്നാട്ടിലൊക്കെ സർക്കാരൊക്കെയാണെങ്കില് ഒത്തിരി സഹായങ്ങള് ചെയ്യുന്നുണ്ട് ഈ ഏറ്റവും പിന്നോക്ക സമുദായക്കാർക്ക് മാത്രം പിന്നെ താഴെ കിടക്കുന്ന ബി പി എല്ലുകാർക്ക് മാത്രം കൊടുക്കാതെ അല്ലാത്ത ബി പി എല് അല്ലായെന്ന് പറഞ്ഞാലും ഹാ ഈ ഇതിനിടത്തരം ആൾക്കാരുണ്ട് ഹോ ഒരു മനുഷ്യരോട് ചോദിക്കാനും ബുദ്ധിമുട്ട് അവരെന്തു ചെയ്യാനാണ് ബുദ്ധിമുട്ടുണ്ടുതാനും പഠിക്കണമെന്ന് ആഗ്രഹവുമുണ്ട് സഹായിക്കാനും ആരുമില്ല അതുകൊണ്ട് സർക്കാര് കുറച്ചും കൂടെ ഇങ്ങനെ പിള്ളേർക്കുള്ള ആനുകൂല്യങ്ങളും പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തുകൊടുക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഇല്ലെങ്കില് പിന്നെ വിദ്യാഭ്യാസമുണ്ടെങ്കിലല്ലേ പിള്ളേർക്ക് നല്ലയൊരു നിലവാരം പുലർത്താനും നമ്മുടെ രാജ്യത്തൊരു പുരോഗതിയുണ്ടാകാനുമൊക്കെ പറ്റുകയുള്ളൂ നമ്മുടെ രാജ്യത്തില് നല്ല ജോലിയൊക്കെയുണ്ടെങ്കില് നല്ല ശമ്പളവുമുണ്ടെങ്കില് സർക്കാരിനൊരു വരുമാനവും എല്ലാമായിട്ടും ഏത് കാര്യത്തിനും സർക്കാര് സഹായിക്കാതെ പറ്റുകയില്ല മുന്നോട്ടിനിയുള്ള കാലം മുന്നോട്ടുപോകാന്